ഇന്നിന്ത്യയിൽ ഏറ്റവും അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് തൊഴിലില്ലായ്മ നമുക്കറിയാം സാമ്പത്തികമായിട്ടൊത്തിരി പിന്നോക്കം നിൽക്കുന്ന യുവജനങ്ങള് നമ്മുടെ ഈ ഇന്ത്യയിലും കേരളത്തിലും പ്രത്യേകിച്ചുണ്ട് വിദ്യാഭ്യാസ സമ്പന്നരായ ഒത്തിരി യുവാക്കള് ജോലിയില്ലാതെ ഇന്നു നിൽക്കുകയാണ് ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളെ സ്വയം തൊഴില് കണ്ടെത്താമെന്ന് വയ്ക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വേറെ വിദ്യാഭ്യാസം ചെയ്തതിൻ്റെ പേരിൽ മറ്റു തൊഴിലുകൾ ചെയ്യുവാൻ സാധിക്കാതെ നിൽക്കുന്ന വിഷമത വേറെ ഇന്ന് യു യുവജനങ്ങളെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാര് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിലും അതെല്ലാം ഫലപ്രദമായി എത്തുന്നില്ല എന്നുള്ളതാണ് ഇന്ന് അതുപോലെതന്നെ അഭിമുഖീകരിക്കുന്ന മറ്റൊരു വിഷയമെന്ന് പറയുന്നത് മറ്റ് ഈ ദ ദാരിദ്ര്യ മേഖലകളിൽ കഴിയുന്നവര് ഒത്തിരി ജനതകളുണ്ട് സമ്പന്നരെ സമ്പന്നരാക്കി വിടുന്നതിനുള്ള ഒരു സാമ്പത്തിക സൃഷ്ടിയാണിന്ന് നടക്കുന്നത് കാർഷിക മേഖലയിലായാലും അതുപോലെതന്നെ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവരെയും പുനരുദ്ധരിക്കുന്നതിനുള്ള പാക്കേജുകൾ വളരെ കുറവാണ് കാർഷിക മേഖല തകർന്നടിഞ്ഞു സാമ്പത്തികമായിട്ടിന്ന് കർഷകനൊന്നും കിട്ടുന്നില്ല അവൻ ചെയ്യുന്ന വിളകൾക്കോ അവൻ്റെ അധ്വാനത്തിനോ ഫലത്തിനോ ഒന്നും ലഭിക്കുന്നില്ല അത് വളരെ നിർണായകമായ ഒരു ഘടകം തന്നെയാണ് അവനിന്ന് ചെയ്താലെല്ലാം കീടങ്ങളെയും രാസവളത്തിൻ്റെ വില ഇതൊക്കെ വച്ച് നോക്കുമ്പോൾ വളരെ അധികം ശോചനീയമായ ഒരു അവസ്ഥയാണ് അതുപോലെതന്നെ നമുക്കറിയാം ഒത്തിരി ഒത്തിരി ദാ ഈ പിന്നോക്ക സമുദായങ്ങളും വളരെയധികം കഷ്ട്ടപ്പെടുന്ന സ്വന്തമായി ഭൂമി ഇല്ലാതെ സ്വന്തമായി വസ്തുക്കളില്ലാതെയൊക്കെ വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട് പട്ടയത്തിനായിട്ട് നെട്ടോട്ടമോടുന്നവർ ഒരു വീടിനായിട്ട് സർക്കാർ ഓഫീസുകൾ കേടി ഇറങ്ങുന്നവർ സുതാര്യമായ സംവിധാനങ്ങളില്ലാതെ നൂലാമാലകളിൽപെട്ട് വലയുന്ന ഒത്തിരി സ്ഥിതികൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് ഇതിനെല്ലാം പരിഹാരം കണ്ട് തൊഴിലാള തൊഴിൽ ചെയ്യ് തൊഴിൽ യുവജന തൊഴിലും കർഷക മേഖലയ്ക്കും എക്കെ പാക്കേജുകൾ കൊടുത്തുകൊണ്ട് ഇതെല്ലാം പുനരധിവസിപ്പിക്കണം എന്ന് ഞങ്ങളാഗ്രഹിക്കുകയാണ് ഇതെല്ലാം സർക്കാർ സംവിധാനത്തിൽ കൂടിയേ നടക്കത്തുള്ളൂ അതിനുള്ള സർക്കാർ മുന്നിട്ടിറങ്ങണം സർക്കാർ അതിന് തീർച്ചയായിട്ടും പ്രവർത്തിക്കും എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിലും ഒത്തിരിയേറെ സാമ്പത്തികപ്രയാസം അനുഭവിക്കുന്ന അനേകരുണ്ട് സാധാരണ ജനങ്ങളാണിന്നേറ്റവും കൂടുതൽ ബുദ്ധിമുട്ടനുഭവിക്കുന്നത് കാരണം അത് ന്ന് സാധാരണയായി അധ്വാനിച്ച് സ്വന്തമായിട്ട് ഒരു അധ്വാനിച്ചല്ലെങ്കിലൊരു സ്വയം തൊഴില് ചെയ്ത് അല്ലെങ്കിൽ അതിൽനിന്നും പത്ത് വരുമാനം കൊണ്ടുപോകാമെന്ന് വച്ചാൽ അതിനും നടക്കുന്നില്ല കാർഷിക മേഖലയ്ക്ക് അതിൻറ്റേതായ പ്രാതിനിധ്യമോ അതിൻറ്റേതായ വിലയോ ലഭിക്കുന്നില്ല മുതൽമുടക്കുകൾ കൂടുന്നു വരുമാനം കുറയുന്നു അപ്പോള് അതൊക്കെ സർക്കാർ കാര്യമായി ഗൗനിക്കേണ്ട ഘടകങ്ങളാണ് അത്പോലെ തന്നെയാണ് ഈ തൊഴിലില്ലായ്മ കേരളത്തിലും നമുക്ക് പി എസ് സി വഴിയാണ് നിയമനം കിട്ടുക എന്നക്കെ സർക്കാർ പറയുന്നുണ്ടെങ്കിലും അതിനും പിൻവാതിൽ നിയമനത്തി കൂടെയൊക്കെ കാര്യങ്ങള് സാധിച്ചെടുക്കുന്ന സ്ത്രീകളൊക്കെ ഇന്നും ഒത്തിരി ഉണ്ട് അതെല്ലാം മാറി സുതാര്യതയാണ് ജനം ആഗ്രഹിക്കുന്നത് അതിനവസരമുണ്ടാകട്ടെ അതിനൊരു സുതാര്യത കൈവരട്ടെ എന്നും ആഗ്രഹിക്കുകയാണ്